ഞങ്ങളേ ഞങ്ങളുടെ അവിടെ ഒരു ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ് നമ്മൾ പറഞ്ഞിരുന്നതേ അപ്പം നമുക്ക് നാല് മണിയിലെ ആവശ്യത്തിനേക്കാണ് നിങ്ങൾക്ക് ആ സമയത്തേക്ക് എത്തിച്ച് തരാൻ പറ്റുമായിരിക്കും അല്ലേ നമ്മൾ റീച്ച് നിങ്ങൾ ഫോൺ നമ്പറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അറിയിക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ ഹോം ഡെലിവറി നിങ്ങൾക്ക് ഉണ്ടല്ലോ നമുക്ക് എത്തിച്ച് തരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ സമയത്ത് തന്നെ കിട്ടണം കെട്ടോ ആളുകൾക്ക് അവരെ കുറച്ച് പേർ ഒന്നിച്ചു വരുന്നതാണ് ഫംഗ്ഷനിൽ നമുക്ക് അത് സപ്ലൈ ചെയ്യണം അതിന് കുറച്ച് മുമ്പേ തന്നെ നമുക്ക് കൊണ്ട് തരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കെട്ടോ ഓക്കെ